എൻ്റെ കുടുംബത്തിലുള്ളവര് എന്നും എനിക്ക് വിലപ്പെട്ടവര് തന്നെയാണ് കാരണം എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ അമ്മ അനിയത്തി പിന്നെ ഞാൻ അങ്ങിനെയൊരു കൊച്ചുകുടുംബാണ് എൻ്റത് പിന്നെയെനിക്ക് ഫാമിലിയില് ഒരുപാട് റിലേറ്റിവ്സ് വേറെയുണ്ട് എന്നാലും കുടുംബത്തിലേന്ന് പറയുമ്പോൾ എല്ലാ കുടുംബക്കാരും എന്നെ വലിയ കാര്യായിട്ട് തന്നെയാണ് കരുതുന്നത് എൻ്റെ കുടുംബത്തില് ഞാൻ കാണുന്നതുപോലെത്തന്നെയാണ് അവരെന്നെയും കാണുന്നത് എല്ലാവർക്കും നമ്മളോട് ഒരു സ്നേഹം പ്രത്യേക സ്നേഹമൊക്കെയുണ്ട് അതുപോലെത്തന്നെയാണ് എൻ്റെ കൂട്ടുകാര് സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ എല്ലാരും ഒരുപോലെത്തന്നെ എല്ലാവരെയും നമ്മളൊരുപോലെത്തന്നെയാണ് കാണുന്നത് എൻ്റെ ഫാമിലിയിലൊരു മെമ്പറ് അതായത് എൻ്റെ ഫാമിലിയിലൊലൊരാളെപ്പോലെത്തന്നെയാണ് ഞാനെൻ്റെ സുഹൃത്തുക്കളെയും കാണുന്നത് അപ്പൊൾ എൻ്റെ വീട്ടിലായാലും പുറത്തായാലും എല്ലാവരും എൻ്റെ കൂട്ടുകാരെന്നു പറയുമ്പോൾ എൻ്റെ വീട്ടുകാർക്കെല്ലാർക്കും ഒരുപോലെത്തന്നെയാണ് അവരുള്ളത് കൂട്ടുകാരെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ എന്താവശ്യങ്ങൾക്കും എൻ്റെ കൂടെത്തന്നെ നിൽക്കുന്നവരാണ് വീട്ടുകാരും കൂട്ടുകാരും എനിക്കെന്താവശ്യം വന്നുകഴിഞ്ഞാലും എൻ്റെ കൂടെ നില്ക്കാൻ അവരെപ്പോഴും ഉണ്ടാകും അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കളെയും വീട്ടുകാരെയും ഞാനൊരുപോലെ ത്തന്നെ കാണുന്നത് പിന്നേ എനിക്കെപ്പോഴും എൻ്റെ കൂട്ടുകാരും സുഹൃത്തുക്കളും ഒരുപോലെത്തന്നെയാണ് ഞാനെല്ലാവരെയും ഒരുപോലെത്തന്നെ കാണും എന്തായാലും അവരെനിക്ക് വളരേ വിലപ്പെട്ടവര് തന്നെയാണ്